ഇപ്പോൾ ഞാൻ നമുക്കൊക്കെ കൂടുതലായിട്ടും ഇഷ്ടമുള്ള മീൻ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് മത്തി ഉണ്ട് പിന്നെ നത്തൽ ഉണ്ട് അങ്ങനത്തെ മീനുകൾ ഓക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും നമ്മുടെ ജില്ലയിലാണെങ്കിലും പൊതുവേ ആൾക്കാർക്ക് കൂടുതലും മത്തിയും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമുള്ളത് നമ്മൾക്ക് ഇപ്പം മത്സ്യബന്ധനത്തിന് പോയികഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മത്തി തന്നെയാണ് അപ്പം മത്തിക്ക് നമുക്ക് വില കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മള് ഇപ്പം അവിടുന്നു കൊടുക്കുമ്പം വലിയ റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല അത് നമ്മള് ആ വിപണിയിലൊക്കെ എത്തികഴിഞ്ഞാല് മാത്രമാണ് നൂറ്റിയമ്പത് ഇരുനൂറ് അങ്ങനെയാണ് റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം മത്തിക്കാണ് കൂടുതൽ ആയിട്ടും ആ ആൾക്കാര് കൂടുതലായിട്ട് ഉള്ളത് കാരണം എന്തെന്ന് വച്ച് കഴിഞ്ഞാല് മത്തിക്ക് നല്ല രീതിയിലുള്ള ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം മത്തിയാണ് കൂടുതലായിട്ടും ആൾക്കാര് ഇഷ്ടപ്പെടുക പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് പിലോപ്പിയ ഉണ്ട് അതായത് പുതിയാപ്ല എന്ന് പറഞ്ഞിട്ട് ഒരു മീൻ ഉണ്ട് അപ്പോൾ അത് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പുതിയാപ്ല എന്ന് പറയും അല്ലാത്തവരൊക്കെ കിളിമീൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയും അപ്പം അതും കുറെ ആൾക്കാര് ഇഷ്ടപ്പെടുന്നുണ്ട് അത് നല്ലൊരു എന്താ പറയുക ഒരു വയലറ്റ് പോലത്തെ ഒരു കളറ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് ആൾക്കാര് ഇഷ്ടപ്പെടുന്ന ഒരു മീനാണ് അപ്പം കൂടുതലായിട്ടും ആൾക്കാര് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് മത്തി തന്നെയാണ്